ഞാൻ ഒരു ഹെഡ്സെറ്റ് ആണ് ഫ്ലിപ്ക്കാർട്ടിൽ നിന്നുമാണ് മേടിച്ചത് എൻ്റെ പിന്നെ കൂട്ടുകാരിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അവളാണ് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ പറഞ്ഞിട്ടാണ് ഞാന് ഹെഡ്സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നേ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു വളരെ ഉപകാരപ്രദമായിരുന്നു യാത്രയിലൊക്കെ പോകുമ്പോ നമുക്കിപ്പോൾ ആരെങ്കിലും കോള് ചെയ്യയാണെങ്കിൽ തന്നെ അത് കോൾ എടുക്കുവാണെങ്കി എന്താ പറയുക നമ്മള് ഫോണിലൂടെ നമുക്ക് ചെലപ്പോ അത്ര ക്ലിയർ ആയിരിക്കില്ല നമ്മള് ബസ്സിലൊക്കെ ആണ് പോകുന്നതെങ്കിലും സ്കൂട്ടിയിൽ ആണെങ്കിലും ഏത് വണ്ടിലാണെങ്കിലും പോകുന്നതെങ്കിലും നമുക്ക് ചിലപ്പോൾ അത് കേട്ടൂന്ന് വരില്ല പക്ഷേ ആ സ്ഥാനത്ത് നമുക്ക് ഹെഡ്സെറ്റ് നമുക്ക് നല്ലോണം കേൾക്കാൻ പറ്റും ഹെഡ്സെറ്റ് അതേപോലെത്തന്നെ നമ്മളോട് സംസാരിക്കുന്നവർക്കും ചിലപ്പോൾ നമ്മള് പിന്നെ ഫോണിലാണ് സംസാരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവർക്കും ക്ലിയറായിട്ട് കേൾക്കില്ല അപ്പോൾ ഹെഡ്സെറ്റിൻ്റെ യൂസെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും നല്ലോണം കേൾക്കാൻ പറ്റും നമുക്കും നല്ലോണം കേൾക്കാൻ പറ്റും അതെന്തായാലും നല്ലൊരു ഫീഡ്ബാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്റെ കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ഫ്ലിപ്ക്കാർട്ടിന്ന് മേടിച്ചിട്ട് ഒരു അഞ്ച് ആറ് ദിവസം ആയിട്ടുള്ളൂ ആദ്യം മേടിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് മേടിക്കാൻ പറ്റിയത് എന്തായാലും എനിക്ക് അതുകൊണ്ട് ഉപകാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ